കേരളീയരുടെ അതായത് കേരളക്കരയിലുള്ളൊരു ഭാഷയാണ് മലയാളഭാഷ മലയാളഭാഷ എന്ന് പറയുമ്പോഴതിനകത്ത് മലയാളത്തിലുള്ള അതായത് മലയാളികൾക്ക് മാത്രമായിട്ടുള്ളൊരു ഭാഷയാണ് ആ ഭാഷ ഇതാണ് അതിന് അത് മലയാളികൾ അങ്ങോട്ട് ഇതിനെ ഇത് സംസാരിക്ക്കയും അങ്ങോട്ടുവിങ്ങോട്ടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു പക്ഷെ ഈ ഭാഷ മറ്റൊരു സ്റ്റേറ്റില് തമിഴ്നാട്ടിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇവ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നവർക്ക് അത് അവർക്ക് മനസ്സിലാവുവേല മലയാളികൾ മാത്രമാവുമ്പോള് മലയാളഭാഷ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന്തന്നെ അവർക്ക് ഉൾക്കൊള്ളുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ ആ സാഹചര്യമനുസരിച്ച് പറയുമ്പോഴെ ഇപ്പോള് മലയാളഭാഷയ്ക്ക് ശരിക്ക് മലയാളഭാഷ മാറ്റി നിർത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളക്കരയിൽ കേരളത്തിൽ നടന്നുകൊണ്ട് മലയാള മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ വന്നതുകൊണ്ട് ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന് മുൻതൂക്കം നടത്തുന്നതാക്കിക്കൊണ്ടും മലയാളഭാഷയെ അങ്ങ് പുറന്തള്ളിക്കൊണ്ട് പോവുന്നതും അത് ആ ഭാഷയെ വികസനമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണതിൻ്റെ മുന്നോട്ടുള്ളയുള്ളത് കാലങ്ങൾ കഴിയുമ്പൊഴീ തലമുറയോ അല്ലൊരഞ്ച് തലമുറ കഴിയുമ്പോൾ മലയാളഭാഷ കാണുവോ ഇല്ലയോ എന്നുള്ളെയൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട് ങേ ഇതാണ് ഈ മലയാളഭാഷയെക്കുറിച്ച് പറയുമ്പോൾ മലയാളഭാഷയുടെ വികസനത്തെക്കുറിച്ചും പറയുമ്പോള് അത് പക്ഷേ നല്ലൊരു ഭാഷയാണ് മലയാളഭാഷ